ഗ്രാമപ്രദേശങ്ങളിൽ സർക്കാർ ഭരണത്തിൽ ഇല്ലാത്ത ഘടകങ്ങളേതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗ്രാമപ്രദേശങ്ങളിൽ പൊതുവെ ഇന്ത്യയുടെ ഹൃദയമാണ് ഗ്രാമമെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ നന്നായി ശ്രദ്ധിച്ചു നോക്കിയാൽ ഗ്രാമപ്രദേശങ്ങളിപ്പോഴും പല കാര്യങ്ങളിൽ നിന്ന് പിന്നോക്കമാണ് ഗ്രാമപ്രദേശത്തിൽ വേണ്ട ഏറ്റവുമാദ്യം പിന്നെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അതായത് നല്ല അത്യാവശ്യം സഞ്ചരിക്കാൻ പറ്റിയ റോഡുകൾ അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ചികിത്സാ സൗകര്യങ്ങളിതൊക്കെ വളരെ നമ്മൾ നഗരപ്രദേശങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഗ്രാമപ്രദേശങ്ങളൊത്തിരി കുറവാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും നല്ല രീതിയിൽ ജനസംഖ്യയുള്ള ഗ്രാമപ്രദേശങ്ങളും അതായതൊരു നഗരം പോലെ തന്നെ ജനസംഖ്യ ഉള്ള ഒരു ഗ്രാമപ്രദേശത്തിനെ ഇന്നും ചികിത്സാ കാര്യങ്ങളിലും വിദ്യാഭ്യാസ സൗകര്യങ്ങളിലും സഞ്ചാര സ്വാതന്ത്ര്യത്തിലുമെല്ലാം ഇന്നും പിന്നോക്കം നിൽക്കുന്ന ഒത്തിരി അധികം ഗ്രാമങ്ങളുണ്ട് അതിന് ഗ്രാമങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് പുതിയ പുതിയ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് വിഹിതത്തിൻ്റെ നല്ലയൊരു ഭാഗവും ഇപ്പം നിലവിലുള്ള പല വലിയ റോഡുകൾ നാഷണൽ ഹൈവേകൾ വൈഡനിങ്ങ് ചെയ്യാനും അതായത് വീതി കൂട്ടാനും അതിനെ കൂടുതൽ മനോഹരമാക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളവിടെ അത് തീർച്ചയായിട്ടും ആവശ്യമാണ് ഒപ്പം ഒട്ടും ഇതുമായി ഈ ഈ ഈ ഈ ഈ സൗകര്യങ്ങളുമായിട്ട് ഇപ്പം ലഭിച്ചിട്ടില്ലാത്ത ആൾക്കാർ തീരെ നിവർത്തിയില്ലാത്ത അതായത് മിനിമം നമ്മൾക്കാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ താമസിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇന്നും സർക്കാർ പല പദ്ധതികളും നടപ്പിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ നടപ്പിലാക്കാനായിട്ട് അവിടെ ഇല്ലാത്ത ഘടകങ്ങളാണ് കുടിവെള്ളത്തിനുള്ള പദ്ധതി കുടിവെള്ള പദ്ധതിയെന്ന് പറഞ്ഞാൽ പല ഗ്രാമപ്രദേശങ്ങളിലും കുടിക്കാൻ യോജ്യമായ വെള്ളം ജലം ലഭിക്കുന്നില്ലയെന്നുള്ളത് വളരെ സത്യമാണ് അതിനു വേണ്ടി സർക്കാർ പല പദ്ധതികളും നടപ്പാക്കുന്നുണ്ടെങ്കിലും അത് നല്ല ഉപകാരപ്രദമായ രീതിയിൽ എല്ലാവരിലേക്കും നല്ല രീതിയിൽ എത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ ആ ലഭിക്കുന്ന രീതിയിൽ ആ പദ്ധതിയെ നടപ്പിലാക്കാൻ വേണ്ട ഘടകങ്ങളൊന്നും സർക്കാർ ഒരു പദ്ധതികളും നടപ്പാക്കണം എന്നുള്ളയൊരു ഉദ്ദേശത്തോടുകൂടി പല പദ്ധതികളും അങ്ങ് നടത്തുന്നു പക്ഷെ അതിൻ്റെ ഗുണഭോക്താക്കൾക്കെത്തേണ്ട രീതിയിലേക്കെത്തുന്നില്ല അതാണൊരു കാര്യം പിന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇന്നും ഗ്രാമപ്രദേശങ്ങളിൽ ഒരു അത്യാവശ്യം മെഡിക്കൽ സഹായം വേണ്ടതാണങ്കിൽ പെട്ടെന്ന് നഗരത്തിലേക്ക് നഗരത്തിലേക്ക് പോകേണ്ടതായ ആവശ്യം വരുന്നുണ്ട് ഒരു പരിധിവരെ ഗ്രാമപ്രദേശങ്ങളിൽ ഇന്നത്തെ മാറി വന്ന സാഹചര്യത്തിൽ ഇന്നത്തെ പുതിയ പുതിയ പകർച്ച വ്യാധികളും കാര്യങ്ങളൊക്കെ ഉള്ളയിടത്ത് ആ കാര്യങ്ങളൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ തന്നെ അതു ലഭിച്ച് അത് അതിനുള്ള പരിഹാരം കണ്ടെത്തുന്ന രീതിയിലേക്ക് നമ്മളുടെ ആരോഗ്യ അല്ലെങ്കിൽ സംരക്ഷണം അല്ലെങ്കിൽ ആ ഇന്നോ ചികിത്സാ സൗകര്യങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെടുക്കാൻ വേണ്ടി സർക്കാരിൽ നിന്നും ഇന്നും പല ഘടകങ്ങൾ സർക്കാരിൽ നിന്ന് വേണ്ട രീതിയിലുള്ളയൊരു ശ്രദ്ധ ഇന്നും നടന്നിട്ടില്ല പിന്നെ വീണ്ടും നിലവിലുള്ള വലിയ വലിയ നഗരങ്ങളിൽ പുതിയ പുതിയ മെട്രോകൾ പണിയാനും പുതിയ റോഡുകൾ പണിയാനുമായിട്ട് കൊടുക്കുന്ന ഫണ്ട് അത് തീർച്ചയായിട്ടും അത് വേണ്ടയെന്നല്ല ഒപ്പം അതിന്റെകൂടെ തന്നെ ഇന്ന ഒരു ഗ്രാമത്തിനു വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ ജി ഡി പിയുടെ ഒരു പെർസെൻ്റേജ് ഗ്രാമത്തിൻ്റെ വികസനത്തിന് വേണ്ടി നീക്കി വെക്കുകയെന്നുള്ളൊരു നിയമം തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരണം എന്നുള്ളതാണെൻ്റെ ആവശ്യം കാരണം ഇന്ത്യയിലെ വളരെ ഒരെൺപത് ശതമാനം ആൾക്കാരും ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരാണ് അവർക്കാർക്കും ഈ പറയപ്പെടുന്നതായ യാതൊരു സൗകര്യങ്ങളും നല്ല വിദ്യാഭ്യാസം കുടിക്കാൻ നല്ല വെള്ളം നല്ല ചികിത്സ സഞ്ചാര യോഗ്യമായിട്ടുള്ള വഴികളൊന്നും ഇന്നും ഗവണ്മെന്റിന്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടില്ല അല്ലെങ്കിലിതിൽ നിന്നെല്ലാം ഇന്നും അവർ പിന്നോക്കം അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇന്നുമെല്ലാം എത്തിപ്പെടാത്ത ഒരു ഒരു ഘടകമാണ് അപ്പോൾ ആ ഗവണ്മെന്റ് ആ സൈഡിലേക്കിന്നും നോക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് പിന്നെ പൊതു സേവനങ്ങൾ പൊതു സേവനങ്ങൾ എന്നു പറഞ്ഞാൽ വിദ്യാഭ്യാസം എല്ലാം പൊതു സേവനങ്ങളിൽ വരുന്നതാണ് പൊതുസേവനം അതായത് ഗവണ്മെന്റ് സ്കൂളുകളിൽ കിട്ടുന്ന ലഭിക്കുന്ന വിദ്യാഭ്യാസം മറ്റുള്ള സ്വകാര്യ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിൽക്കുന്ന ലെവലിലേക്ക് നമ്മുടെ ഗവണ്മെന്റ് വിദ്യാഭ്യാസത്തിനെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല അവിടെ പല അടിസ്ഥാന സൗകര്യങ്ങളുമില്ല അതായത് ഇപ്പം കമ്പ്യൂട്ടറാണങ്കിലും അല്ലെങ്കിൽ അവിടെ വേണ്ട സ്കൂൾ ക്ലാസ്സ് മുറികളുടെ സൗകര്യങ്ങളാണെങ്കിലും ക്ലാസ്സ് റൂമുകളിൽ ഉണ്ടായിരിക്കേണ്ടതായ മറ്റ് കമ്പ്യൂട്ടർ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇന്നും പല സർക്കാർ സ്ഥാപനങ്ങളിലും അവ ഇല്ലാത്തതുകൊണ്ടും അതിനു വേണ്ടി പ്രത്യേകം തുക അനുവദിക്കാത്തതുകൊണ്ടുമൊക്കെ സേവനങ്ങൾ ആൾക്കാരിലേക്ക് ലഭിക്കേണ്ടതായ രീതിയിൽ ലഭിക്കുന്നില്ല അതുപോലെ തന്നെ പല സേവനങ്ങൾ ഇപ്പോൾ റെയിൽവേ റെയിൽവേയിൽ ആൾക്കാരിൽ നിന്ന് ടിക്കറ്റിൻ്റെ പൈസ നിരക്ക് ഈടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ റിസേർവേഷൻ്റെ നിരക്ക് ഇടാക്കിയതിന് ശേഷം അവർക്ക് സഞ്ചരിക്കാനായിട്ടൊരു സീറ്റ് കിട്ടയ്കയോ അല്ലെങ്കിൽ അവർക്ക് ഒരു റിസർവേഷൻ കിട്ടാത്തതായ അവസ്ഥകളുണ്ട് എന്നാലവർ അതിന് വേണ്ടിയിട്ടുള്ള റിസർവേഷൻ നിരക്കും ടിക്കറ്റ് നിരക്കുകളുമെല്ലാം ആദ്യം ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പം റയിൽവേയുടെ സൈഡിൽ അതുപോലെ തന്നെ ഗവണ്മെൻ്റ് ഇപ്പോൾ ഇപ്പോൾ പൊതു യാത്ര സൗകര്യങ്ങളിലൊക്കെ ഗവണ്മെൻ്റ് ഇത് ഏറ്റെടുത്ത് നടത്തുന്ന കാര്യങ്ങളൊക്കെ ഇന്നും ഗവൺമെൻ്റിൻ്റെ വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടലുകൾ നടക്കുന്നില്ല അവിടെ കിടന്നുള്ള സത്യമാണ് ആരോഗ്യ അസമത്വങ്ങൾ സമൂഹത്തിൽ നല്ല രീതിയിലുണ്ട് പണമില്ലാത്ത ആൾക്കാർക്ക് വേണ്ട രീതിയിലുള്ളയൊരു ചികിത്സ ആവശ്യ സമയത്ത് അത്യാവശ്യമായിട്ടെത്തിക്കാനായിട്ട് പലപ്പോഴും കഴിയാതെ സാധിക്കുന്നില്ല അതെസമയം സാമ്പത്തികമായിട്ട് നിൽക്കുന്നവരാണ് ആ ആളാണെങ്കിൽ ഒന്നല്ലെങ്കിൽ അടുത്ത സൗകര്യമുള്ള ഹോസ്പിറ്റലുകളിൽ പോയി അവർക്ക് ലഭിക്കേണ്ടതായ ചികിത്സ ലഭിക്കുകയും അവരുടെ ആയുസ്സ് വർദ്ധിക്കയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവൻ സാമ്പത്തികത്തിൻ്റെ കുറവുകൊണ്ട് ആ ചികിത്സ നിഷേധിക്കപ്പെടുകയും അവൻ ആ ആയുസ്സ് മുഴുവനാകുന്നതിന് മുൻപ് മരണപ്പെട്ട് പോകുക അല്ലെങ്കിൽ ആ ആരോഗ്യത്തിൽ അതായത് ആ വേദനയോടുകൂടി അല്ലെങ്കിൽ ആ രോഗത്തോടുകൂടി തന്നെ ബാക്കി ജീവിതം മുന്നോട്ട് നയിച്ച് പോകേണ്ടതായൊരു അവസ്ഥയുണ്ട് കുറ്റകൃത്യങ്ങളും സാമൂഹ്യ അശാന്തിയും രാഷ്ട്രീയ പാർശ്വ വൽക്കരണം അത് ഇന്ന് നോക്കുകയാണെങ്കിൽ മിക്ക കുറ്റകൃത്യങ്ങളും ചെയ്യാൻ ആ കുറ്റവാളിക്ക് ആ കുറ്റകൃത്യം ചെയ്യാനുണ്ടായ മനക്കരുത്ത് കിട്ടുന്നത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനം ഉള്ള ആൾക്കാരിൽ നിന്നു കിട്ടുന്ന സഹായം അല്ലെങ്കിൽ സപ്പോർട്ട് കൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള ആൾക്കാരാണ് ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് അവരെ ഇന്നും കുറ്റ കൃത്യങ്ങൾക്ക് ശേഷം സമയബന്ധിതമായി കുറ്റകൃത്യങ്ങൾ കണ്ടത് ആ ഒരു കുറ്റവാളിയെ കണ്ടത്തി അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ഇന്നും നമ്മൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു അല്ലെങ്കിൽ അവരെ കണ്ടെത്തിയാലും അവർ ഇന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ കുരുക്കിൽപ്പെടുത്തി അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഒരു സാധ്യതയെ കണ്ടെത്തി അവരതിൽ നിന്നെല്ലാം രക്ഷപെട്ട് പോയിട്ട് വീണ്ടും കുറ്റകൃത്യത്തിലേക്ക് പോവുകയും അല്ലെങ്കിൽ വീണ്ടും സമൂഹത്തിൽ കുറ്റവാളികളെ പിന്നെയും വാർത്തെടുക്കാൻ അല്ലെങ്കിൽ പിന്നെയും കുറ്റകൃത്യങ്ങൾക്കൾക്ക് ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് രാഷ്ട്രീയ പാർശ്വവൽക്കരണം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കുന്ന സർക്കാരിന് സ്വാധീനമുള്ള മേഖലകളിൽ വേണ്ട വികസനങ്ങൾ കൊണ്ടുവരാൻ അവർ കൂടുതൽ താൽപ്പര്യം കാണിക്കുകയും അവർക്ക് സ്വാധീനമില്ലാത്ത ഏരിയകളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ വികസനങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിലവർ താൽപ്പര്യം കാണിക്കാതിരിക്കുന്നതായ ഒരു കാര്യം വളരെയധികം ജനങ്ങളെ ദുഃഖിപ്പിക്കുകയും ഒപ്പം പിന്നോക്കത്തിൽ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് അപ്പം രാഷ്ട്രീയ പാർശ്വവൽക്കരണവും നല്ല രീതിയിൽ തന്നെ നമ്മുടെ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടെന്നുള്ളത് സത്യമായൊരു കാര്യമാണ് പൊതു സേവനങ്ങൾ ആരോഗ്യ അസമത്വങ്ങൾ കുറ്റകൃത്യങ്ങൾ സാമൂഹ്യ അശാന്തി രാഷ്ട്രീയ പാർശ്വവൽക്കരണം ഇതിനെല്ലാം ഭരണ സംവിധാനം നല്ല ഒരു നിയമം ഉണ്ടാക്കി വാർത്തെടുത്ത് അതിൽ എല്ലാവരെയും അതിൽ പങ്കാളികളാക്കി അല്ലെങ്കിൽ എല്ലാവരേയും ഒരുപോലെ കാണുന്ന രീതിയിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കുന്ന ഒരു ഒരു ഒരു ഒരു പദ്ധതികൾ ആവിഷ്ക്കരിച്ചോ അല്ലെങ്കിൽ ആ വക കാര്യങ്ങളിൽ ഭരണ സംവിധാനത്തിൽ നിന്ന് ഒത്തിരി പുറകിലാണെന്നുള്ളതൊരു സത്യം തന്നെയാണ്